ബൈക്കിനെ നല്ല രീതിയിൽ തന്നെയാണ് പരിപാലിച്ച് കൊണ്ട് മുന്നോട്ട് പോകുന്നത് എന്താ പറയാ ഒരു ഒരു റൈഡിനു പോയിട്ട് വന്ന് കഴിയുമ്പോൾ അതിൻ്റെതായ ഓയിൽ ചെയ്ഞ്ചിങ്ങും അങ്ങനെ ചെയ്യാനുള്ള സാഹചര്യമുണ്ടെങ്കിൽ ഓയിൽ ചെയ്ഞ്ച് ചെയ്യുകയും പിന്നെ അത്പോലെ തന്നെ വണ്ടി വാഷ് ചെയ്യാൻ ക്ലീൻ ചെയ്യാൻ നമ്മൾ നമ്മൾ ബൈക്ക് സ്വന്തമായിട്ട് വാഷ് ചെയ്യുന്നതിനെ കഴിഞ്ഞ് നമുക്ക് സർവീസ് സെൻ്ററിൽ കൊടുത്ത് വാഷ് ചെയ്യുന്നതായിരിക്കും ഏറ്റവും ബെറ്ററ് നമ്മുടെ സമയം ലാഭമാണ് അത്പോലെ അവർ നല്ല രീതിയിൽ വാഷ് ചെയ്ത് ക്ലീൻ ചെയ്ത് നമ്മളെ ഏൽപ്പിച്ച് തരേം ചെയ്യുന്നുണ്ട് അപ്പോൾ ഒരു യാത്ര പോയിട്ട് വന്ന് കഴിയുമ്പോൾ നമ്മൾ ബൈക്കിന് നമ്മൾ നമ്മൾ എന്താണ് പറയുന്നത് നമ്മൾ നമ്മളെ തന്നെ സൂക്ഷിക്കുന്നത് പോലെ തന്നെയാണ് നമ്മൾ ബൈക്കിനെ സൂക്ഷിക്കുന്നത് ഒരു ആ ഒരു വൃത്തിയിലും ആ ഒരു എന്താ പറയാ എന്താ പറയാ അതിനും ജീവനുള്ളതാണ് അപ്പോൾ നമ്മൾ അതിൻ്റെതായ രീതിയിൽ വേണം അതിനെ പരിപാലിക്കാനും അതിനെ സംരക്ഷിക്കുവാനും ചെയ്യേണ്ടത് നമ്മുടെ കൊണ്ടുപോവല്ലേ നമ്മുടെ യാത്രകളിലും നമ്മുടെ എന്താ പറയാ ജീവിതത്തിൽ ഉടനീളം ഇപ്പം ബൈക്ക് ഇല്ലാത്ത ആരും തന്നെയില്ല അപ്പോൾ സമയങ്ങളിൽ ഇത് അതിനെ വാഷ് ചെയ്തും അതിനെ ഓയിൽ ചെയ്ഞ്ചിങ് സമയത്തിന് ഓയിൽ ചെയിഞ്ച് ചെയ്ത് കൊടുക്കുക അതിനെ സമയത്തിന് ടയറ് മാറുക അല്ലെങ്കിൽ അപകടങ്ങൾ സൃഷ്ടിക്കാൻ സാധ്യതയുണ്ട് ടയറു മാറാതെ പോകുകയും ഒരുപാട് നാളിട്ട് ഉപയോഗിക്കുകയും ചെയ്യുമ്പോൾ ആ ഒരു പ്രശ്നം ഉണ്ടാവും ഇപ്പം നമ്മളെ മടുപ്പിക്കുന്ന കാര്യം എന്നുപറയുമ്പോൾ നമ്മളിപ്പം യാത്രകൾ പോകുമ്പോൾ നമുക്ക് എന്താപറയാ എന്തെങ്കിലും ബൈക്കിന് എന്തെങ്കിലും പ്രശനങ്ങളുണ്ടാകും അത് നമ്മൾ സൂക്ഷിക്കാത്ത കൊണ്ടാണ് പ്രശ്നമുണ്ടാവുന്നത് എങ്കിലും എന്തെങ്കിലും ചിലപ്പോൾ സൂക്ഷിച്ചാലും ചിലപ്പോൾ ചെറിയ ചെറിയ പ്രശ്നങ്ങളുണ്ടാവാം ടയറ് പഞ്ചറാവാം അങ്ങനൊക്കെ വരുമ്പോൾ നമ്മുടെ ആ യാത്രയുടെ മൂടേ അങ്ങ് പോകും ബൈക്ക് പഞ്ചറായാലും എന്തെങ്കിലും ബ്രേക്ക് എന്തേലും പ്രശ്നം ക്ലെച്ചെന്തേലും പ്രശ്നം അല്ലെങ്കിൽ എന്തേലും എന്താ പറയാ പെട്രോൾ തീർന്നു പോവുക എന്തേലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ ആ യാത്ര തന്നെ നമ്മളെ മടിപ്പിച്ചു കളയും പക്ഷേ നമ്മൾ അതെല്ലാം മുൻകരുതലൊക്കെ എടുത്ത് എന്താ ടയർ പക്കയാണോ അതെങ്ങനെ നോക്കുകയും പിന്നെ നമ്മുടെ ഫ്യൂവൽ പെട്രോള് അതിനുണ്ടോ അത് ഫില്ല് ചെയ്യണോ അതെല്ലാം ഫില്ല് ചെയ്ത് ആ ഒരു രീതീൽ മുന്നോട്ട് കൊണ്ടു പോം ദീർഘദൂര യാത്രകളിൽ നല്ലൊരു രീതിയിൽ വേണം വണ്ടി സർവീസ് വണ്ടി നല്ല രീതിയിൽ കണ്ടീഷനാക്കി വേണം ദീർഘദൂര യാത്രകളിൽ നമ്മൾ സഞ്ചരിക്കേണ്ടത് നമ്മൾ ദീർഘദൂര യാത്ര യാത്രയിലെങ്ങാനും ആണ് എവിടെലും വെച്ച് എന്തെലും പറ്റിക്കഴിഞ്ഞാൽ നമുക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല അപ്പം നമ്മൾ അത്രയും സമയം നഷ്ടമാണ് അപ്പം അത് കൊണ്ട് നമ്മൾ ഇപ്പോൾ നമ്മുടെ വണ്ടികളെല്ലാം നല്ല രീതിയിൽ തന്നെ വാഷ് ചെയ്ത് നല്ല രീതിയിൽ തന്നെ സൂക്ഷിക്കുക നല്ല രീതിയിൽ തന്നെ സൂക്ഷിക്കുക അത് വളരെ നല്ല കാര്യമായിരിക്കും നമ്മൾ ദീർഘദൂര യാത്ര ചെയ്യുമ്പോൾ രണ്ട് പേരൊക്കെ ആയിരിക്കും ഒരുമിച്ചു പോകുന്നത് അപ്പോൾ രണ്ട് പേരാണെങ്കിലും നമുക്കിപ്പോൾ എന്തെലും പറ്റിക്കഴിഞ്ഞാൽ രാത്രികളിൽ പഞ്ചറാവുകയോ അല്ലെങ്കിൽ പെട്രോള് തീരുക വലിയൊരു ബുദ്ധിമുട്ടായിരിക്കും അതൊക്കെ പ്രത്യേകിച്ചും ബൈക്കിൽ പോകുമ്പോഴും ഇപ്പോൾ സ്ത്രീകളുമായിട്ടാണ് പോകുന്നതെങ്കിൽ രാത്രികാലങ്ങളിൽ എന്തേലും പറ്റിക്കഴിഞ്ഞാൽ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല അപ്പോൾ അതിൻ്റെതായ മുൻ കരുതൽ എടുത്തു തന്നെ പോകണം പഞ്ചറാവാതിരിക്കാനുള്ള അതും പറയാൻ പറ്റത്തില്ല എങ്കിലും പഞ്ചറായാൽ നമുക്ക് എന്ത് ചെയ്യാം അതിൻ്റെതായ എന്തെങ്കിലും ചെറിയ എന്താ പറയാ ട്യൂബ്ലെസ് ഇപ്പോഴത്തെ ട്യൂബ്ലെസ് ടയറുകളാണെങ്കിലും അതിൽ നമുക്ക് സ്വന്തമായിട്ട് എന്തെങ്കിലും ചെയ്യാൻ പറ്റുവാണെങ്കിൽ അത് ചെയ്തു മുന്നോട്ട് പോവാൻ സാധിക്കും ക്കാം നമുക്കിനി പ്രചോദനം നമ്മുടെ ദീർഘദൂര യാത്രകളിൽ എന്താ ഒരുപാട് ദൂരം യാത്ര ചെയ്താൽ സ നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ